ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഡാൻസിന് ചേരുന്നത് അതും എൻ്റെ കൂട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് ചേരുന്നത് എനിക്ക് ഡാൻസ് കളിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു ഞാൻ എട്ടിൽ പഠിക്കുമ്പോഴാണ് തിരുവാതിരയ്ക്കു ചേർന്നത് അന്ന് ഞാൻ തിരുവാതിര ബാക്കി കുട്ടികൾ കളിക്കുന്നത് മാത്രമായിരുന്ന് കണ്ടിരുന്നത് ഇതിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു കൂട്ടുക്കാർ നിർബന്ധിച്ചതു കൊണ്ട് തന്നെ എനിക്ക് കളിക്കാൻ നല്ല ആഗ്രഹവും ഉണ്ടായിരുന്നു എല്ലാവരും എനിക്ക് നല്ല പ്രോത്സാഹനം തന്നു അങ്ങനെ എൻ്റെ ആത്മവിശ്വാസം കൂടി എനിക്ക് അങ്ങനെ കളിക്കാൻ ഒരു അവസരം കിട്ടി അപ്പോഴെനിക്ക് സന്തോഷവും തോന്നി ആദ്യമായിട്ട് കളിക്കുന്നതിനാൽ കുറേ ഏറെ പ്രാക്ടീസ് വേണ്ടി വന്നു എൻ്റെ കൂട്ടുകാർ എന്നെ അതിനു വളരെ ഏറെ സഹായിച്ചു ക്ലാസുകൾ കട്ട് ചെയ്ത് പ്രാക്ടീസിനു പോകാറും ഉണ്ടായിരുന്നു അങ്ങനെ ആഴ്ചകളുടെ പ്രാക്ടീസിനു ശേഷം മത്സര ദിവസം വന്നു അന്ന് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു സെറ്റ് സാരി ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഞാൻ അങ്ങനെ ആദ്യമായി സ്റ്റേജിൽ കയറി തിരുവാതിര കളിച്ചു അതിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്യും ഇതൊരു നല്ല അനുഭൂതി ആയിരുന്നു നല്ലൊരു അനുഭവം കൂടി ആയിരുന്നു അന്ന് ഞാൻ ആദ്യമായാണ് സ്റ്റേജിൽ കയറുന്നത് ആദ്യമായാണ് ഡാൻസിന് സമ്മാനം വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകത ഉള്ളതായിരുന്നു അന്നെനിക്ക് എൻ്റെ അമ്മ ആയിരുന്നു സാരി ഉടുപ്പിച്ച് തന്നിരുന്നത് അത് അമ്മയുടെ സാരി ആയിരുന്നു ആഭരണങ്ങൾ വാങ്ങാൻ ഞങ്ങൾ വളരെ ഏറെ കഷ്ടപ്പെട്ടു എല്ലാവർക്കും ഒരേ പോലെ കിട്ടുന്നുണ്ടായിരുന്നില്ല തിരുവാതിരയ്ക്ക് അന്ന് ഞങ്ങൾ പത്തു പേര് ഉണ്ടായിരുന്നു ഞാൻ മുന്നിലായിരുന്നു നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ തെറ്റിക്കുമോ എന്ന് അവസാനം ഞങ്ങളുടെ അദ്ധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ആ സമ്മാനം നേടാൻ സാധിച്ചത് പിന്നെ ഞാൻ കോളേജിലായപ്പോൾ ഡാൻസുകൾ കളിക്കാൻ തുടങ്ങി എല്ലാ പരിപാടികൾക്കും ഞാൻ ഡാൻസ് കളിക്കാൻ ഇറങ്ങുമായിരുന്നു എത്ര പ്രാവശ്യം സ്റ്റേജിൽ കയറിയാലും എനിക്ക് പേടി മാറുന്നുണ്ടായിരുന്നില്ല നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ ഡാൻസ് മത്സരങ്ങളിൽ ചേർന്നതു കൊണ്ട് തന്നെ എൻ്റെ ആത്മവിശ്വാസം കൂടുകയും ചെയ്തു എൻ്റെ ഡാൻസ് മെച്ചപ്പെട്ടു ഡാൻസിൻ്റെ ഉദ്ദേശം തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മളുടെ വികാരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അതും എനിക്ക് സാധിച്ചു എൻ്റെ ഭാവങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിച്ചു ആദ്യമൊക്കെ എനിക്ക് ഒട്ടും കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന കാര്യമായിരുന്നു ഡാൻസ് പക്ഷെ ഇപ്പോൾ എനിക്കത് അനായാസം ചെയ്യാൻ പറ്റുന്നുണ്ട് ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നാണ് അതുകൊണ്ട് തന്നെ പുറമേ ഉള്ള ഒന്നും എന്നെ ബാധിക്കാറില്ല ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് വെസ്റ്റേൺ ഡാൻസും ഭരതനാട്യവും പഠിക്കണമെന്നാണ് ആഗ്രഹം എനിക്കുറപ്പുണ്ട് ഞാൻ പഠിച്ചാൽ ഞാൻ അത് നന്നായി കളിക്കുമെന്ന് മറ്റുള്ളവർ സ്റ്റേജിൽ കളിക്കുമ്പോൾ ഞാൻ അവരുടെ നീക്കങ്ങളും ഭാവങ്ങളും മുദ്രകളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അത് പഠിക്കണമെന്ന് നല്ല ആഗ്രഹവും ഉണ്ട്